എൻ്റെ ബൈക്കില് ഞാൻ ഏറ്റവും കൂടുതൽ ദൂരം പോയിരിക്കുന്നത് എന്ന് പറയാണെങ്കിൽ ഞാൻ ഒത്തിരി സ്ഥലങ്ങളില് പോയിട്ടുണ്ട് എൻ്റെ ഇവിടുന്ന് എൻ്റെ വാഗമണ്ണ് അങ്ങനത്തെ കുറേ ഹൈ റേഞ്ച് സ്ഥലങ്ങളിലൊക്കെ ഞാന് പോയിട്ടുണ്ട് ഏറ്റവും കൂടുതല് നമുക്ക് ഇതായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത് അതായത് അപകടം നിറഞ്ഞ വഴികളിലൊക്കെ പറയാണെങ്കില് വയനാട് ചുരമൊക്കെ കയറുമ്പഴത്തേക്കൊക്കെ അത് ഭയങ്കര അപകടമാണ് പിന്നെ കണ്ണൂരൊക്കെ പോകുമ്പാഴാണെങ്കിലും ബൈക്കിലോടിക്കാനായിട്ട് നല്ല ഒരു ഓഫ് ഓഫ് റോഡ് വണ്ടിയല്ല എങ്കിൽ അതായത് ഓഫ് റോഡ് ബൈക്കല്ല നമ്മളുടെ കയ്യിലിരിക്കുന്നത് സാധാരണ നോർമൽ യൂസ് ബൈക്കാണെങ്കിൽ അതിൻറ്റേതായ ഒരു ബുദ്ധിമുട്ട് അതിനുണ്ടാവുന്നതാണ് നമ്മളെപ്പഴും ആ ഒരു വഴി നമ്മള് സെലക്ടെയ്ത് ഓഫ് റോഡ് പോവാൻ താൽപര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ ആ ഒരു തരത്തിലുള്ള വണ്ടി നമ്മളെപ്പോഴും ചൂസേയ്യാൻ നമ്മള് ശ്രമിക്കേണ്ടതാണ് കുഴപ്പമുള്ള വണ്ടി റോഡിൽ ഉപയോഗിക്കാനായിട്ട് നമ്മള് സാധാരണ ഡെയിലി അത് എന്തേലും ദൈനംദിന ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വണ്ടി അത് വേറെ ഓഫ് റോഡ് പോകുന്ന വണ്ടി വേറെ അപ്പോള് നമ്മള് എപ്പോഴും അതില് ഒരു അതിലൊരു ഒരു രസമുണ്ട് ഒരു രസം നമുക്ക് എപ്പോഴും ഓർത്തുവെക്കാനായിട്ട് സാധിക്കും അപ്പോള് എൻ്റെ ബൈക്കില് ഞാന് താണ്ടി യഏറ്റവും വെല്ലുവിളി നിറഞ്ഞ പാതകൾ എന്നു പറഞ്ഞ് കഴിഞ്ഞാല് വാഗമണ്ണ് പോയപ്പോഴത്തേക്കും നല്ല ഒരു കുത്തനെ ഒരു കയറ്റമുണ്ടായിരുന്നു അത് ഈ എന്നാല് അത് അത് അത് കഴിഞ്ഞ് പോകുക എന്നു പറഞ്ഞാല് വണ്ടി വലിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ടായിരുന്നു എൻ്റെ ബൈക്ക് ഞാൻ ഫസ്റ്റ് ഗിയറിലിട്ടു വലിച്ചാലും അതുപോലെ ബുദ്ധിമുട്ടായിട്ടാണ് ഞാനും എൻറ്റൊരു ഫ്രണ്ടും കൂടെ എൻ്റെ വണ്ടിയിൽ പോയത് അപ്പോള് അതുപോലെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എനിക്ക് ഫീലീയ്തിട്ടുണ്ട് അപ്പോള് അതൊരു വലിയൊരു അനുഭവമായിരുന്നു ഞാൻ അന്ന് വിചാരിച്ചായിരുന്നു ബൈക്കിനെന്തേലും കംപ്ലെയിന്റ് കാര്യങ്ങളോ വന്നു എന്നു തന്നെ ഞാൻ വിചാരിച്ചു അപ്പോള് അങ്ങനെ തന്നെ വിചാരിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ വണ്ടി വലിക്കാതായപ്പോഴത്തേക്കും ഞാൻ ഒത്തിരി ഇറങ്ങിനിന്ന് നോക്കി ഒത്തിരി ടെൻഷനടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വാ വാഗമണ്ണ് ചെന്നപ്പോഴത്തേക്കും ഒത്തിരി ദൂരം വണ്ടി ഓടിക്കുക എന്ന ഒരു പ്രശ്നത്തിൽപ്പെട്ടതുകൊണ്ട് തന്നെ വണ്ടിക്ക് അതിൻ്റെതായ കംപ്ലയിന്റും കാര്യങ്ങളും വന്നു പിന്നെ വണ്ടി ഒരു ഒരു ഒരു ലോങ്ങ് റോ ഒരു ഒരു ദൂരെ യാത്ര വണ്ടി പോയിക്കഴിഞ്ഞാല് ബൈക്കിന് അത്യാവശ്യം നല്ല മെയിൻ്റനൻസും കാര്യങ്ങളും വേണം ഇല്ലെങ്കില് തന്നെ വണ്ടി അതിൻറ്റേതായ ബുദ്ധിമുട്ടുകള് കാണിച്ചുതുടങ്ങും ഓഫ് റോഡ് ചെയ്യുന്ന വണ്ടികളാണെങ്കില് അതുപോലെ അതിനെ നമ്മൾ അതിനെ കാര്യമായി പരിഗണിക്കുകയും മെയിൻ്റെയിൻ ചെയ്യാൻ ചെയ്യുകയും വേണം കൃത്യമായി സമയങ്ങളിൽ അതിൻ്റെ ഓയില് മാറ്റുക അതിൻ്റെ ടയര് മാറ്റാനുള്ള കാര്യങ്ങള് നോക്കുക എല്ലാ കാര്യങ്ങളും നമ്മള് നോക്കുക അതിൻ്റെ ഫ്യൂവൽ ഫ്യൂവൽ എന്നു പറയുന്ന കാര്യം അതിനു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മളത് നല്ല തരത്തിലുള്ള ഫ്യുവല് തന്നെ അതിന് മേടിച്ച് അടിക്കാനായിട്ട് നമ്മള് ശ്രമിക്കണം അതൊത്തിരി കാര്യങ്ങൾ ബൈക്കില് ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ പ്രധാനമായിട്ടും നമ്മള് ശ്രദ്ധിക്കേണ്ടത് നമ്മടെ സേഫ്റ്റിയാണ് നമ്മുടെ സുരക്ഷ നമ്മള് നമ്മള് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്കും വണ്ടി ഓടിക്കുക ബൈക്കോടിക്കുന്ന ഒരാള്ക്ക് ഫുൾ ഗിയര് ഉണ്ടായിരിക്കേണ്ടത് നല്ലതാണ് അതായത് ജാക്കറ്റായിക്കോട്ടെ കയ്യി കയ്യില് നീ പാഡായിക്കോട്ടെ എന്തേലും ആയിക്കോട്ടെ ഹെൽമെറ്റായിക്കോട്ടെ ഹെൽമെറ്റ് വച്ചുതന്നെ വണ്ടി ഓടിക്കുമ്പോള് എപ്പോഴും ശ്രദ്ധിക്കണ്ടതാണ് പിന്നെ നമ്മുടെ ഒരു ബാക്ക് പാക്കുണ്ട് നമ്മുടെ ഫുൾ സേഫ്റ്റി നമ്മളുടെ ജാക്കറ്റ് ഫുൾ സേഫ്റ്റി ജാക്കറ്റില് വേണം നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട് ഏത് ലോങ്ങ് നമ്മള് പോയിക്കഴിഞ്ഞാലും ഈയൊരു സംഭവങ്ങൾ ഫ്രീക്വന്റായിട്ട് ബ്രേക്കെടുക്കുക റസ്റ്റെയ്യുക നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മള് ചെയ്യുക എന്നിട്ട് വേണം നമ്മള് വണ്ടി ഓടിക്കാനായിട്ട് ദുർഘടമായ പാതകളിലൂടെയാണെങ്കിൽ അതിനനുസരിച്ച് എക്സ്പീരിയൻസ് നമ്മള് ഗെയിൻ ചെയ്ത് നമ്മളതുപോലെ തന്നെ അതിനെ ഓടിക്കാൻ നമ്മള് ശ്രദ്ധിക്കേണ്ടതാണ്